ഹലോ ഞാൻ ഒരു എൻ്റെ കുട്ടീനെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് ഓഫീസർ ആയിരുന്നു എറണാകുളത്ത് അപ്പോൾ ഞാനവിടെനിന്ന് ട്രാൻ ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ കോഴിക്കോട് നമ്മുടെ രാമനാട്ടുകര ഒരു സ്കൂൾ ഇല്ലേ എൽ പി സ്കൂൾ അപ്പോൾ അവിടത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ആയി ഒരു ടീച്ചർ ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ് അപ്പം എൻ്റെ കുട്ടീനേം നമ്മുടെ കോഴിക്കോട് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അവൾ എട്ടാം എട്ടാം ക്ലാസ്സ് ആണ് ആ പെൺകുട്ടിയാണ് ആ ഒരാളേ ഉള്ളൂ വരുന്നത് ആ ആ ആ അഡിഷണൽ വരും പേ ചെയ്യണമല്ലേ ഓക്കെ ഓക്കെ ഇപ്പം സ്കൂൾ ബസ് ഞങ്ങളിപ്പം താമസമുള്ളത് രാമനാട്ടുകര ആ ഭാഗത്തു തന്നെയാണ് താമസം വരുന്നത് അപ്പോൾ അവിടത്തേക്ക് സ്കൂൾ ബസ് ഉണ്ടാവുവോ ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് സ്കൂൾ ബസിനിപ്പം നമുക്കവിടം വരെ പോകുന്നതിന് എത്ര രൂപ വരും മന്ത്ലി ത്രീ തൗ ആ ഓക്കെ ഓക്കെ ഇപ്പം ഈ നമു ആ അതായ അതായത് ഇപ്പോൾ ഈ പി ടി എ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതൊക്കെ ഏകദേശം എത്ര വരും വരുക മൊത്തം അതായത് പി ടി എ ഫണ്ട് അടക്കം ഫീസും കാര്യങ്ങളും ഓക്കെ ഓക്കെ ഇപ്പോൾ ആ ഇപ്പോൾ കുറേ ക്ലാസ്സ് എടുത്ത് പോയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ടെടുക്കാൻ അങ്ങനത്തെ എന്തെങ്കിലും സൗകര്യമുണ്ടോ ആ ആ ചെയ്യാൻ പറ്റുമല്ലേ ഓക്കെ ഓക്കെ

അതായത് ഇപ്പം നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ ആ ആ ക്ലാസ്സ് എടുത്തുകൊടുക്കും ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വരാം എന്നാൽ നാളെ വന്നിട്ട് എന്തൊക്കെയാണ് കൊണ്ടു വരേണ്ടത് ടി സിയും കൊണ്ടു വരും വേറെയൊന്നും വേണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ പൈസ എത്രയാണ് അഡ്വാൻസ് എത്രയാണ് തരേണ്ടത് ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി നാളെ വന്നിട്ട് എല്ലാം ചെയ്യാം ഓ ഓക്കെയെന്നാൽ